ഞാന് വാങ്ങിച്ചത് ഒരു പേനയായിരുന്നു അത് അതില് ഒരു ഫൈവ് കളേര്സ് വരുന്നുണ്ട് എഴുതാന് അത് നമ്മക്ക് ഏതു വേ ഏത് കളറ് വേണോ അതിനനുസരിച്ചിട്ട് സ്റ്റിക്കീതിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാം അതില് പച്ച നീല കറുപ്പ് മഞ്ഞ ഓറഞ്ച് അങ്ങന്ത്തെ കളേര്സ് വന്നിരുന്നു അതിപ്പോൾ കുട്ടികൾക്കായാലും കുട്ടികൾക്ക് സ്കൂളില് പോകുമ്പോൾ അത് ഉപയോഗിക്കാംന്നു വെച്ചുകഴിഞ്ഞാല് അവർക്ക് അവര് കൂടുതല് ഇഷ്ട്ടപ്പെടും പിന്നെ അതില് വന്നിട്ടൊരു റൈസറുണ്ടായിരുന്നു വൈറ്റ്നറുപോലെ പിന്നെ ഇത് പെട്ടന്ന് പൊട്ടാത്തതും അതുപോലെ

എല്ലാര്ക്കും ഇഷ്ട്ടപെടുന്നൊരു ആയിരുന്നു